ആ ഞാൻ ബൈക്കിൽ സന്ദർശിക്കാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം എന്നു പറഞ്ഞുകഴിയുമ്പോൾ അത് കൊടൈക്കനാൽ എന്നുപറഞ്ഞ നമ്മുടെ തമിഴ്നാട് ജില്ലയിലെ ഏറ്റവും ഒരു പൊക്കം പ്രദേശമാണ് അതായത് ഓൾട്ടിറ്റ്യൂഡിൽ ഏറ്റവും കൂടുതൽ പൊക്കപ്രദേശം എന്നറിയപ്പെടുന്ന കൊടൈക്കനാൽ സ്ഥലമാണ് കൊടൈക്കനാലിലെ ഒരു വിനോദ കേന്ദ്രം തന്നെയാണ് പല രീതിയിൽ നമുക്കവിടെ വിനോദം നടത്താൻ പറ്റും പിന്നെ ഭാര്യ ഭർത്താവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോകാൻ പറ്റും ബൈക്കിൽ പോകുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോകുന്നതിനാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ള സ്ഥലം ഇവിടെ നിങ്ങൾ ഞാൻ ഏറ്റവും കൂടുതൽ ഏതെങ്കിലും സ്ഥലങ്ങൾ നിർദ്ദേശിക്കാൻ ഉണ്ടെങ്കിൽ അത് ഗുണ കേവ്സ് എന്നു പറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ അവിടുത്തെ പൈൻ ഫോറസ്റ്റ് സൂയിസൈഡ് പോയിൻ്റ് ഇങ്ങനത്തെ ഓരോ സ്ഥലങ്ങളാണ് ഇവിടെ നമ്മൾ പോകുകയാണെങ്കിൽ ഈ കൊടൈക്കനാൽ പ്രദേശം നമ്മൾ പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് കൂടുതലായിട്ടും പല സ്ഥലങ്ങൾ നമുക്ക് കാണാം അവിടുത്തെ നമ്മുടെ ക്ലൈമറ്റ് അതായത് അവിടുത്തെ കാലാവസ്ഥ ഒരു വ്യത്യാസം എന്നു പറയുമ്പോൾ അവിടെ നല്ല തണുപ്പാണ് ഫെബ്രുവരി ജാനുവരി പിന്നെ കൂടാതെ ഡിസംബർ നവംബർ ഒക്ടോബർ കാലഘട്ടങ്ങളിൽ ഈ ഒരു മാസങ്ങളിൽ നമ്മൾ പോവുകയാണെങ്കിൽ നല്ല രീതിയിൽ തണുപ്പ് അനുഭവപ്പെടാറുണ്ട് നമ്മുടെ മനസ്സിനും നമ്മുടെ ശരീരത്തിനും കൂടുതലായിട്ടുള്ളൊരു ഉണർവേകാനയിട്ട് ഈയൊരു യാത്ര നമുക്ക് വളരെയേറെ സഹായിക്കാറുണ്ട് അപ്പം അത് അതുകൊണ്ടുതന്നെ കൂടുതലായിട്ട് ഇങ്ങോട്ടുള്ളൊരു യാത്ര നമ്മൾ നടത്തുകയാണെങ്കിൽ നന്നായിരിക്കും കാര്യം കേരളത്തിൽ നിന്നും നമ്മൾ തമിഴ്നാടുവരെ പോകുമ്പോൾ വലിയൊരു യാത്രാക്ലേശം ഇല്ല കാര്യം റോഡുകളുടെ ഒരു ഗുണമേന്മകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പോകാൻ പറ്റും പിന്നെ അതുകൂടാതെ തന്നെ നമുക്ക് ഇത്രയും ദൂരം ആയതുകൊണ്ട് തന്നെ നമുക്കൊരു അല്ലലില്ലാതെ നമുക്കൊരു ബുദ്ധിമുട്ടില്ലാതെ നമുക്ക് പോയിട്ടുവരാൻ പറ്റും കാര്യം കൂടുതലായിട്ടും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ യാത്രകൾ പോകുമ്പോൾ മണിക്കൂറുകളും ദൂരങ്ങളും മയിലുകളും താണ്ടി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴെട്ട് ഒമ്പത് പത്ത് ദിവസങ്ങൾ വരെ ഒറ്റയടിക്ക് യാത്ര ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തേയും കൂടുതലായിട്ട് നമ്മൾ അതിനെ കണക്കാക്കണം നമ്മുടെ ശരീരത്തിനെ കണക്കാക്കി വേണം നമ്മൾ ഇതിൽ കൂടുതലുള്ള യാത്രകൾ ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തെ കണക്കാക്കി നമ്മൾ ഇങ്ങനത്തെ യാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ മനസ്സിനൊരു ഒരു ഒരു കൂടുതലായിട്ടും നമ്മുടെ മനസ്സിനെ ഒന്ന് ഉണർവാക്കിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും നമ്മൾ ബൈക്കിൽ കൂടാതെ നമുക്ക് വേണമെങ്കിൽ കാറിലാണെങ്കിലും നമുക്ക് ഇങ്ങനെയൊരു യാത്ര വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും കൂടുതലായിട്ട് നമ്മൾ ബൈക്കിൽ ചെയ്യാൻ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥയാണ് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ നമ്മുടെ സുരക്ഷിതത്വം നോക്കും കാര്യം ഇത് രണ്ടു വീലിൽ ഓടുന്ന ഒരു യന്ത്രം ബൈക്കാണ് അപ്പം അതുകൊണ്ടുതന്നെ ഹെൽമെറ്റും മറ്റ് അതുകൂടാതെ തന്നെ അതിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ നോക്കുക അങ്ങനെ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ യാത്ര കൂടുതൽ സുഗമമാക്കാം നമുക്ക് കൊണ്ടുപോവാൻ പറ്റും യാത്രകൾ എപ്പോഴും നമ്മുടെ മനസ്സിന് കുളിർമ നൽകുന്ന ഒരു കാര്യമാണ് കാര്യം നമുക്ക് ഇതിലൂടെ ഓർമ്മകൾ അയവറക്കാൻ പറ്റും ഓർമ്മകൾ അയവറക്കുന്നതിലൂടെ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ ജീവിതത്തെ കൂടുതലായിട്ടും നല്ല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ നമ്മുടെ ജീവിതത്തെ നല്ല രീതിയിൽ പാകപ്പെടുത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുകൊണ്ടുതന്നെ നമ്മൾ നമ്മുടെ യാത്രകൾ കൂടുതൽ ഒരു ഓർമ്മയാക്കുന്ന രീതിയിൽ നമ്മൾ യാത്ര കൊണ്ടുപോവുക നമ്മുടെ യാത്ര ഒരിക്കലും മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരാതിരിക്കുകയും അങ്ങനെ നമുക്ക് നമ്മുടെ യാത്ര നമുക്ക് മുൻപോട്ട് കൊണ്ടുപോവാം